ഞാൻ പൊതുവേ പാട്ടുകൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് പൊതുവേ പഴയകാല ഗാനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം അന്നത്തെ പാട്ടുകളുടെ അത്രയും തന്നെ ഇപ്പോഴത്തെ പാട്ടുകൾ മികച്ചതാണെന്ന് ഉള്ള അഭിപ്രായം എനിക്ക് ഇല്ല ഇപ്പോഴും അപൂർവമായി വളരെ നല്ല ഗാനങ്ങൾ വരുന്നുണ്ട് അവ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് പണ്ടത്തെക്കാലത്തെ പാട്ടുകളുടെ വരികളും ഈണവും ഒന്നും തന്നെയും അത്രയും ഗുണാത്മകമായി ഇപ്പോഴത്തെ പാട്ടുകൾക്ക് തോന്നിയിട്ടില്ല അത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വ്യത്യാസമാണോ ഇപ്പോഴത്തെ തലമുറയുടെ ആസ്വാദന രീതി മാറിയതാണോ എന്നൊന്നും വ്യക്തമല്ല കൂടുതലും പഴയകാല ഗാനങ്ങൾ ആണ് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കൂടുതലും വളരെ ചടുലമായതും ഫാസ്റ്റായിട്ടുള്ള പാട്ടുകളാണ് ഇപ്പോൾ പുറത്ത് ഇറങ്ങുന്നത് ഞാൻ കൂടുതലും മെഡലി മെലഡി സോങ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതിനാൽ തന്നെ പഴയ ഗാനങ്ങളാണ് കൂടുതലും കേൾക്കുവാൻ താൽപര്യപ്പെടുന്നത്